ഹലോ ആ തങ്കച്ചാ ഞാനേ ഇലക്ട്രിഷ്യൻ ആണേ ആ നിങ്ങള്ക്കു ചെറിയ വീട് വയറിങ് ചെയ്യാനുണ്ടെന്നതിനെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ ചോദിച്ചായിരുന്നല്ലേ ആ എന്തായാലും കൊള്ളാം നമുക്കേ അത് നമുക്കടുത്തയാഴ്ച അങ്ങു ചെയ്താലോ പിന്നെ അത് അളവുനോക്കണം അതു തന്നെയല്ല എത്ര മുറിയാണു വീട് അഞ്ചു മുറിയല്ലേ ആ ആ അതിന് ബാത്റൂമൊക്കെ ഇല്ലേ ആ എല്ലാമുണ്ടല്ലേ ആ ആ ആ മ്മ് അതേ അല്ലേ ആ

സ്ക്വയർ ഫീറ്റ് എന്നു പറഞ്ഞേലേ നമ്മളേ അങ്ങനെ നമ്മള് ഉടമ്പടി എടുത്തങ്ങനെ ചെയ്യാറില്ല തച്ചിന്പുറത്തുള്ളതേ കാര്യങ്ങളെ ചെയ്യാറുള്ളതേ ആ അപ്പോള് അതു നമുക്കു നോക്കാം എന്നാന്നുവച്ചുകഴിഞ്ഞാല് ഇപ്പോഴത്തെ രീതിക്കെന്നു പറഞ്ഞാല് നല്ല മൊടക്കാവും വയറിങ് സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ് ആ അപ്പോള് നന്നായ രീതിയില് ചെയ്യണമെന്നുണ്ടെങ്കില് ഒന്ന് വയറിങ് സാധനങ്ങളെല്ലാം എടുക്കണം എടുത്ത് മറ്റേ അപ്പോള് നമുക്കെന്നുകൊണ്ട് തീരേണ്ടതാണ് ആ അതേ അല്ലേ ആ ആ ആ അത്രയേ ഉള്ളു അത്രയേ ഉള്ളു മ്മ് അതെ അല്ലേ ആ നമുക്ക് എന്നാല് നമുക്ക് ചെയ്തേക്കാം അതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് താമസിക്കാതെ അടുത്തയാഴ്ച തുടങ്ങിയേക്കാം

അതെ അല്ലേ ആ അതിനു കുഴപ്പമില്ല നമുക്ക് എടുത്തേക്കാം കെട്ടോ അപ്പോള് നമ്മള് പിന്നേ സാധനങ്ങളെടുക്കാൻ പോവുകയാണെങ്കിലേ എവിടുന്നാ കട്ടപ്പനയില്നിന്നാണോ അതോ നമ്മള് വെല്ല്യാശ്ശേരിയില്നിന്നാണോ ഈ ആ ഈ കുറച്ചുള്ള സാധനമെന്നു പറയുമ്പോഴേ അത് ഉപയോഗിച്ചിട്ട് എത്ര നാളായതാണുപോലും ഉപയോഗിക്കാത്ത സാധനം ആണല്ലേ ആ ആ എടുത്തുവച്ചിരുന്നെന്നേ ഉള്ളൂ അല്ലേ ആ ആ അപ്പോള് നമ്മള് വാങ്ങിച്ചുവച്ചിരിക്കുന്നതിൻ്റെ കണക്കെടുത്ത് നോക്കിയിട്ട് നമ്മള്ക്ക് വയറിങ്ങിന് എന്തോരം ആണ് എത്ര മീറ്റര് വയറും മറ്റു കാര്യങ്ങളുമൊക്കെ വേണം അതൊക്കൊന്നെന്നേ നമ്മള് ഒരു മുറിയിലെത്ര ബൾബ് വേണം അത് ഫാനിൻ്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേണമല്ലോ ആ ആ അങ്ങനെ നമുക്കത് എടുക്കാം നമുക്കതിനു കുഴപ്പമൊന്നുമില്ല മ്മ് അങ്ങനെ ചെയ്യാം അല്ലേ മ്മ്

അ നന്നായിട്ടെയ്യാം നന്നായിട്ടെയ്തുതരാം അതിനു കുഴപ്പമൊന്നും ഇല്ല പിന്നേന്നു പറയുമ്പോഴത്തേന് ഇപ്പോള് നമ്മള് ഇപ്പോള് ഓരോ മാസം കൂടുന്നതിനനുസരിച്ച് വയറിങ്ങിൻ്റെ സാധനങ്ങൾക്കൊക്കെ വിലക്കൂടുതലായി അതുപോലെ തന്നെ ഈ എല്ലാ മുറികളിലും അല്ലാ എന്നിട്ടെടുക്കാമെന്നു പറഞ്ഞായിരുന്നു നമ്മള് എത്ര അതു പറയാം എസ്റ്റിമേറ്റ് പറയാം വന്നു കണ്ടേച്ചിട്ട് ഞാന് പറയാം പിന്നെ ഒരു മുറിയിലേ എത്ര ഫാനെല്ലാ മുറിയിലും വേണ്ടേ വേണം മ്മ് അപ്പോഴങ്ങനെതന്നെ അതുപോലെതന്നെ ടെറസ്സിൻ്റെ മണ്ടയില് ലൈറ്റൊക്കെ കൊടുക്കേണ്ടേ ആ വേണം ആ ആ ആ ഹാ ഹാ പിന്നെ ഇപ്പോഴത്തെ രീതിക്കെന്നു പറയുമ്പോഴത്തേന് ലൈറ്റ് കൂടുതലുള്ള വീടുകളാണ് ഇപ്പോള് കൂടുതലും ലൈറ്റിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഒത്തിരി കൂടുതലുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ അതിനോടു ചേർത്തുതന്നെ വേണ്ടേ വെള്ളം എങ്ങനെ മോട്ടോര് വച്ചിട്ടുള്ളതാണോ അതോ കുഴൽക്കിണറാണോ ആ അതെ അല്ലേ മ്മ് ആ അപ്പോള് എടുക്കാം ആ അ ഹാ അതിൻ്റെ വയറിങ്ങും എല്ലാംകൂടെ വരുമ്പോഴത്തേനും നല്ലൊരു പണിയാകും കേട്ടോ നല്ലൊരു പണിയാവും മ്മ് ആ ആയിക്കോട്ടെ അതിനു കുഴപ്പമില്ല നമുക്ക് ചെയ്യാം ചെയ്യാം അപ്പോല് ചിലപ്പോഴാണെങ്കില് ഞങ്ങള് ഒരു രണ്ടുമൂന്നുപേര് ഒന്നിച്ചുവരും ആ അപ്പോള് ആ അങ്ങനെ ചെയ്യാം അല്ലേ മ്മ് എത്രയും വേഗം പണി തീർക്കാമല്ലോ എനിക്ക് വേറേ പണിയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതേ അതെ ആയിക്കോട്ടെ പറയാം മ്മ് അതായിക്കോട്ടെ

ശരി ആ ആ

നമ്മുക്ക് ഇച്ചിരി തിരക്കുണ്ട് അതുകൊണ്ടാണു ചോദിക്കുന്നതേ ആ ചോദിക്ക് മ്മ് മ്മ് മ്മ് മ്മ് ആ പിന്നെ സമയം കുറവായതുകൊണ്ട് വരില്ലേ നമുക്കും മറ്റു പണികളൊക്കെ തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത് എത്രയും വേഗം മ്മ് ആ ആ അപ്പോള് അപ്പോള് നാളെ നമുക്കൊരു ഉച്ച കഴിയുമ്പോഴത്തേനെ ഞാൻ വണ്ടിയുമായിട്ടു വന്നേക്കാം സാധനങ്ങളെടുക്കാൻ ഏ ആ ആയിക്കോട്ടെ